ആ സുഡോക്കു എന്നുള്ളൊരു ഓറിഗാമി ആർട്ട് വഴിയാണ് ജപ്പാനിൽ നിന്ന് ഈ ഒറിഗാമി എന്നുള്ള ജപ്പാനതിരുകടന്ന് ഒറിഗാമി ഇന്റർനാഷണലി ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത് ഒർഗാമി ഒരു മൈണ്ടിന് ഒരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് റിലീഫായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഒറീഗാമിയിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വളരേ എന്താ പറയുക റിലാക്സേഷൻ തരുന്നൊരു ക്രാഫ്റ്റാണ് ഓർഗാമി ബേസിക്കലി പേപ്പർ യൂസ് ചെയ്തിട്ട് പേപ്പറിൻ്റെ ഫോൾഡിങ്ങുകൾ പേപ്പറുംകൊണ്ട് കട്ട് ചെയ്ത് സിസേർസൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പേപ്പറിന്റ ഫോൾഡിങ്ങുകൾ കൊണ്ട് നമ്മൾ ഓരോ കലാരൂപങ്ങളുണ്ടാക്കുന്നതിനെയാണ് ഒറിഗാമി എന്നുപറയുന്നത് ഒറിഗാമി നമ്മുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഒറിഗാമി എഫക്റ്റീവ് ആകുക എന്ന് വെച്ചാൽ ഒറിഗാമി നമുക്ക് പല രീതിയിലേക്ക് യൂസ് ചെയ്യാം ഒന്ന് ഈ ഈ ഡെക്കറേൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒറിഗാമിയുടെ പേപ്പറിൻ്റെ പാറ്റേൺ യൂസ് ചെയ്ത് കൊണ്ട് പേപ്പറ് പോലത്തെ പേപ്പറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയലുകളിലേക്ക് നമുക്കങ്ങനത്തെ പാറ്റേണുകള് യൂസ് ചെയ്ത് ആർട്ട്ഫോം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് അവർക്ക് വിൽക്കാനും അവർക്ക് നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് ഡിഫറെന്റൊരു ക്രിയേറ്റിങ്ങ് ഐഡിയ ആണ് വരുന്നത് പിന്നെ കുട്ടികള് ചെറിയ കുട്ടികള് ഓറിഗാമിക് പഠിപ്പിക്കുമ്പോ അവർക്ക് അവരത് ഉണ്ടാക്കി എന്നുള്ളൊരു അഭിമാനത്തിനപ്പുറം അവർക്ക് മാനസികമായ വളരെയൊരു ചിന്തിക്കാൻ അല്ലെങ്കിൽ ഈ എങ്ങനെ ഫോ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇന്ന ഒരു രൂപം കിട്ടും അത്കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഈ പേപ്പറേൽ നമുക്ക് ലോക്ക് ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികളും അത് ചിന്തിക്കും അപ്പോൾ ചിന്തിക്കുമ്പോൾ റുബിസ്ക്യൂബൊക്കെ കളിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ പാറ്റേണ് കുട്ടികളുടെ മനസ്സില് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും കുട്ടികള് പാറ്റേണ്കള് ഈ കളേഴ്സ് അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യുമ്പോൾ അവരുടെ ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓർഗമി ഒരു ഹോബി ആക്കികൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര എന്താ പറയുക ആ ഹോബിക്ക് അപ്പുറമൊരു വരുമാന മാർഗ്ഗമാക്കുന്ന ആൾക്കാരുണ്ട് ഇനി ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ആർക്കിടെക്ചറാണ് സൊ ഫോർ മി ആർക്കിടെക്ചറിൽ ഞാൻ ഒറിഗാമി എങ്ങനെയാണ് ഇമ്പ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറിഗാമിക് അതായത് ഡൈനാമിക് ആയിട്ടുള്ള രൂപങ്ങൾ എനിക്ക് പ്രൊഡക്ട് ഡിസൈനിലേക്ക് എനിക്ക് കൊണ്ടുവരാം എൻ്റെ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ അങ്ങനത്തെ ആർക്കിടെക്ചറുകളൊക്കെ ഉണ്ട് പക്ഷെ ജപ്പാൻ തന്നെയാണ് ഉള്ളതും അങ്ങനത്തെ ആർക്കിടെക്ച്ചറുകളുണ്ട് അവര് അവരുടെ ഈ ഒറിഗാമി ചെയ്യുന്ന ഓരോ പാറ്റേൺ ഓരോ പാറ്റേണുകള് ഓരോ ഡിസൈനിലേക്ക് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് പ്രൊഡക്ട് ഡിസൈനിലേക്ക് ഒക്കെ അവര് ഇമ്പ്ലിമെന്റ് ചെയ്യാറുണ്ട് ഇട്സ് സോ ഈസി ടു മെയ്ക്ക് പിന്നെ ഒറിഗാമി അടങ്ങുന്ന അ നമുക്ക് ഉപയോഗിക്കാവുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഉപകരണങ്ങളും ഈ ഒറിഗാമിയുടെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം പല മെറ്റൽനെയും നമുക്ക് പേപ്പറിൽ നിന്നുള്ള രീതിയിൽ മാല്യബിളാണ് പേപ്പറെന്നുള്ള രീതിയിലേക്ക് പേപ്പർ ഷീറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അടിച്ച് പരത്തി എടുക്കാമല്ലൊ അപ്പോൾ നമുക്ക് ഫാക്ടറിയുടെ ഉപയോഗത്തില് ഈ ഒറിഗാമി പാറ്റേൺസിന് റഫറെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും